എൻ്റെ താല്പര്യമെന്നുവെച്ചാല് നോണ് ഫിക്ഷൻ എഴുതാനാണ് അതായത് ഒരു നമ്മുടെ ഇമാജിനേഷൻ ഇതൊന്നും കൂട്ടാതെ വാട്ട് ഇസ് എ റിയൽ ഫാക്ട് എന്താണ് യഥാർഥത്തില് സംഭവിക്കുന്നത് ലോകത്തില് സംഭവിക്കുന്നത് അതിനെക്കുറിച്ച് എഴുതാനാണ് സമൂഹത്തിലെന്താണ് സംഭവിക്കുന്നത് അതിനെക്കുറിച്ച് എഴുതാനാണ് എനിക്കേറ്റവും താല്പര്യം പക്ഷെ അതിനോട് സമമായിട്ട് എനിക്ക് ഫിക്ഷൻ എഴുതാനും താല്പര്യമുണ്ട് ഉം അതായത് നമ്മുടെ ഇമേജിനേഷൻ പവർ ഉപയോഗിച്ച് നമ്മള് എഴുതി നമ്മുടെ സാങ്കല്പികമായൊരു ലോകത്തേക്ക് നമ്മുടെ കവിതകളെയും കഥകളെയും നോവലുകളെയും കൊണ്ടുപോകുന്ന ഫിക്ഷൻ എഴുതാന് എനിക്ക് നല്ല താല്പര്യമുണ്ട് അപ്പോള് എനിക്ക് ഇതില് രണ്ടും ഒരുപോലെയാണ് കാരണം രണ്ടും രണ്ട് കാറ്റഗറിയാണല്ലോ ഫിക്ഷനാകുമ്പോള് നമ്മുടെ ഇമേജിനേഷൻ പവർ ഉപയോഗിക്കുന്നതും നോൺ ഫിക്ഷനാകുമ്പോള് നമ്മളെന്താണ് സൊസൈറ്റിയിലെ റിയൽ ഫാക്റ്റ് എന്താണെന്നുള്ളതും അതിനെക്കുറിച്ചെഴുതുന്നതുമാണല്ലോ അപ്പോള് ഞാൻ ഫിക്ഷന് എടുത്തുനോക്കുമ്പോള് എനിക്കേറ്റവും ഇഷ്ടം നമ്മുടെ ബെന്യാമിനെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ നോവലുകളാണ് എനിക്കേറ്റവും കൂടുതല് അദ്ദേഹത്തിൻ്റെ സാങ്കല്പിക ലോകമാണ് എനിക്കേറ്റവും കൂടുതല് ഇഷ്ടമായിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ മഞ്ഞവെയില് മരണങ്ങളാണെങ്കിലും ആടുജീവിതമാണെങ്കിലും എനിക്കേറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ബെന്യാമിന് സാറിൻ്റേതാണ് ഉം അദ്ദേഹത്തിൻ്റെ ആടുജീവിതമാണ് എനിക്കേറ്റവും കൂടുതല് കറച്ചുംകൂടി ഹാർട്ട് ടച്ചിങ്ങായിട്ടുള്ളത് അത് വായിച്ചുകഴിഞ്ഞപ്പോള് ഒരു കരച്ചില് വരെ ഫീല് ചെയ്തൊരു നോവലാണ് ആടുജീവിതം എന്നുള്ളത് പിന്നെ അതുപോലെ തന്നെയാണ് കെ ആർ മീരയുടെ ആരാച്ചാര് അതായത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന അല്ലെങ്കില് നടിക്കുന്ന നമ്മുടെ ഈ ലോകത്ത് സ്ത്രീത്വത്തെ വളരെ താഴ്ന്ന രൂപത്തിലേക്ക് കൊണ്ടുപോകുന്ന ഈ സമൂഹത്തില് ഒരു ഫെമിനിസം നോവലായിട്ടാണ് കെ ആർ മീരയുടെ ആരാച്ചാർ എനിക്ക് ഫീല് ചെയ്തത് അതിലുള്ള ആരാച്ചാറിൻ്റെ നമ്മുടെ നോവലിൻ്റെ പുസ്തകത്തിൻ്റെ ചട്ട കാണുമ്പോള്ത്തന്നെ നമുക്കൊരു ഫീലിംഗ് വരും ഉം അപ്പോള് ഈ രണ്ട് പ്രധാന എഴുത്തുകാരാണ് ഫിക്ഷനിൽ എനിക്ക് ഏറ്റവും കൂടുതലും താല്പര്യമുള്ള അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തികള് ഇവര് രണ്ടു പേരുമാണ് ഇതില് ബെന്യാമിൻ സാറാണ് എനിക്ക് ഞാൻ അദ്ദേഹത്തിനെ നേരിട്ട് കണ്ടതാണ് അദ്ദേഹത്തിനോട് അടുപ്പമുള്ളയാളാണ് പിന്നെ അതുപോലെ തന്നെ നോൺ ഫിക്ഷൻ ആകുമ്പോഴാണ് നമ്മുടെ സാധാരണ നമ്മുടെ പത്രങ്ങളില് വരുന്ന ലേഖനങ്ങള് പീരിയോഡിക്കല്സിലെ ലേഖനങ്ങള് നമ്മുടെ സാധാ ഡാറ്റാ ബേയ്സിലുള്ള ആ ഡാറ്റ അനലൈസ് ചെയ്തിട്ടുള്ള ലേഖനങ്ങള് അതൊക്കെയാണ് ഒന്നുകൂടി താല്പര്യമുള്ളത് ഉം രണ്ടും ഒരുപോലെയാണ് പിന്നെ അതിലുള്ള നമ്മുടെ സൊസൈറ്റിയില് സമൂഹത്തില് എന്താണ് കൂടുതൽ നടക്കുന്നത് സാമൂഹികമായ രാഷ്ട്രീയപരമായ സാമ്പത്തികമായ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ വെല്ലുവിളികളാണ് നമ്മൾ നേരിടുന്നത് നമുക്ക് അതിനുള്ള സൊല്യൂഷൻസ് എന്തൊക്കെയാണ് നമ്മൾ അതിന് നമ്മുടെ സൊസൈറ്റിയിൽ എന്തൊക്കെയാണ് ചേഞ്ച് മാറ്റങ്ങള് വരുത്തേണ്ടത് ഇതൊക്കെ നമ്മള് ചർച്ച ചെയ്യുന്നത് നമ്മുടെ നോൺ ഫിക്ഷനിലൂടെയാണ് അപ്പോള് നമ്മുടെ ഈ സാഹിത്യത്തില് ഫിക്ഷനും നോൺ ഫിക്ഷനും ഒരുപോലെ സ്ഥാനമുണ്ട് അപ്പോള് ഇതില് ഓരോരുത്തര്ക്ക് അനുസരിച്ചാണ് ഇപ്പോള് എനിക്ക് നോൺ ഫിക്ഷനാണ് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത് കാരണം അതാണ് നമ്മള് ഏറ്റവും കൂടുതല് നമ്മളെന്താണോ യഥാര്ത്ഥത്തിൽ സംഭവിക്കുന്നത് അതിനെ സമൂഹത്തിലേക്ക് ജനങ്ങളിലേക്ക് എത്തിക്കുകയെന്നുള്ള ലക്ഷ്യത്തിലാണ് എനിക്ക് നോൺ ഫിക്ഷനോട് ഇത്ര താല്പര്യമുള്ളത് പിന്നെ ഫിക്ഷനാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഇമേജിനേഷൻ പവര് വർദ്ധിക്കും ഇമേജിനേഷൻ ജനങ്ങളിലേക്ക് എത്തിക്കുക ഇത്തരത്തിലുള്ള ഒരു സാങ്കല്പികലോകത്തേക്ക് ജനങ്ങളെ എത്തിക്കുകയെന്നുള്ള ലക്ഷ്യത്തില് നമുക്ക് ഫിക്ഷനും സാഹിത്യവുമെല്ലാം വളരെ പ്രശസ്തമാണ് ഓക്കെ